അതെയല്ലോ പറഞ്ഞുകൊള്ളൂ ആ പഠിക്കുന്നുണ്ട് പഠിക്കുന്നതൊക്കെയുണ്ട് എന്നിരുന്നാലും അവൻ സ്പോർട്സിലാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്

ആ അവനെ ആ മേഖലയിലേക്ക് വിടുകയാണെങ്കില് നല്ല സ്കോപ്പ് കാണും അവന് അവൻ ചെയ്യുന്നതൊക്കെയുണ്ട് പക്ഷേ അവന് കൂടുതലായിട്ട് ക്രിക്കെറ്റിനോടാണ് അവന് താല്പര്യം സ്കൂളിൽ ആ അവനെ വിടുകയാണെങ്കില് നല്ലതായിരിക്കും അവനാണെങ്കില് സ്കൂളിലെ സ്പോർട്സ് ക്ലബിലുണ്ടായിരുന്നു അവനെല്ലാത്തിനുംകൂടെ അന്ന് പോകാറൊക്കെയുണ്ട് മത്സരത്തിനൊക്കെ സമ്മാനമൊക്കെ മേടിക്കാറുണ്ട് ആ അടുത്തയാഴ്ച ഒരു അടുത്തയാഴ്ചയാണെങ്കില് ഒരു കലോൽസവമുണ്ട് അതിനവനെ വിടാമോ വിടാൻ പറ്റുമോ

അവൻ വീട്ടില് വന്ന് പഠിക്കുന്നുണ്ടോ

ആ അവനെ വിടുകയാണെങ്കില് നല്ലതായിരുന്നു

ആ പഠിത്തത്തിലൊക്കെ ശരിയാണ് പക്ഷേ അവനെ സ്പോർട്സിനുകൂടി വിടുകയാണെങ്കില് അത്രയുംകൂടെ നല്ലതായിരിക്കും ആ നമ്മുടെ സ്കൂളിലങ്ങനെ കോച്ചിങ്ങൊന്നുമില്ല അത് പുറത്തുവിട്ട് പഠിപ്പിക്കുകയാണെങ്കില് നല്ലതായിരുന്നു

പഠിക്കുന്നതിനൊന്നും മാർക്കൊന്നുമില്ല അവന്

ആ അവനെ അക്കാദമിയില് വിടുന്നതിലൊന്നും കുഴപ്പമില്ല പഠിത്തത്തിനെയൊന്നും ബാധിക്കരുത് ആ ശരി എന്നാല്

എന്താണ് ഒന്നുകൂടെ പറയാമോ അതിവിടെ ഇല്ല പുറത്തുനിന്ന് മേടിക്കണം ആ ശരിയെന്നാല് ആ ശരിയെന്നാല്